ഒരു ഭൂമി സംബന്ധമായ പ്രശ്നത്തിന് ആളുകൾ കൂടുതലായും ഉപദേശത്തിന് സ്വീകരിക്കുന്നത് തന്നെക്കാൾ ആ മേഖലയിൽ അതായത് റിയൽ എസ്റ്റേറ്റിൽ തന്നെക്കാൾ അറിവുള്ള ഒരാളോട് തന്നെയായിരിക്കും അയാളുടെ ഉപദേശത്തിനായി പോവുക എന്ന് പറഞ്ഞത് ഇനി ഇപ്പോൾ അങ്ങനെ ആരും പോകാൻ ഇല്ലെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഒരു വക്കീലിൻ്റെ അടുത്ത് പോകാം കാരണം വക്കീൽ എന്ന് പറഞ്ഞാൽ നിയമ നടപടിക്രമങ്ങൾ ഒക്കെ അറിയാവുന്ന ഒരു വ്യക്തി ആണ് വക്കീലെന്ന് പറയുന്നത് ഉൾനാടൻ പ്ര ഉൾനാടുകളിൽ ഭൂമി സ്വന്തമാക്കാന് ഭൂസ്വത്തവകാശികൾക്ക് ഭൂസ്വത്തവകാശികൾക്ക് മൈകർ കർഷകർക്ക് കർഷകർ നിരവധി ബുദ്ധിമുട്ടുകൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് കാരണം ഉൾനാടുകളിൽ അവിടുത്തെ ഭൂമി എന്ന് പറഞ്ഞാല് മറ്റേ പട്ടണങ്ങളിൽ നിന്നുമായി നമുക്ക് വളരെ വിദൂരത്തിൽ നിൽക്കുന്ന ഒരു ഭൂമി ആണ് കാരണം ചിലപ്പോൾ ചിലത് ഉൾനാടൻ പ്രദേശങ്ങൾക്കകത്ത് ലാറ്ററൈറ്റ് മണ്ണോ അല്ലെങ്കിൽ എത്തെറിയമോ തോറിയമോ അങ്ങനെ എന്തേലുമൊക്കെയുണ്ടാവും അപ്പോൾ മാർക്കറ്റിലാകുമ്പോൾ അതിന് വാല്യൂ കൂടും പിന്നെ ഉൾനാടൻ പ്രദേശങ്ങളില് ഭൂസ്വത്തവകാശങ്ങളിൽ കർഷകര് ബുദ്ധിമുട്ട് അനുഭവിക്കുണ്ടെന്ന് ഇല്ല എന്ന് പറയാൻ പറ്റില്ല അനുഭവിക്കുന്നുണ്ടെന്ന് പറയാൻ പറ്റില്ല ഇനി അഥവാ അനുഭവിക്കുന്നുണ്ടെങ്കിൽ കർഷകർ തീർച്ചയായും തന്നെക്കാൾ വിവരം ആ മേഖലയിൽ തന്നെ വിവരമുള്ളടുത്ത് പോകുമെന്നുള്ളത് ഉറപ്പുതന്നെയാണ് കാരണം ഒരു പക്ഷെ തലമുറകളായി കൈമാറി വന്ന ഭൂമി ആയിരിക്കും അപ്പോൾ അതിനെ സംരക്ഷിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്